ഞാനൊരു മൊബൈല് മേടിച്ചു മൊബൈലിൽ അധികം ചാർജൊന്നും നിൽക്കുന്നില്ല ഫോണിലധികം കളിക്കാനൊന്നും പറ്റുന്നില്ല മൊബൈല് ഹേങ്ങായി പോവുക വേഗം കളിക്കുമ്പോൾ അത് ഹേങ്ങായി പോവുക അതിൽ ഒരു ഏപ്പും ഡൗൺലോഡ് ആക്കാനൊന്നും പറ്റുന്നില്ല ഒരു നന്ദില്ലാത്ത ഫോണായിരുന്നു അതിൻ്റെ കമ്പനിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു കമ്പനി ഒന്നും ഇല്ലാത്ത ഒരു നന്ദില്ലാത്ത ഒരു ഫോണ് അതിൽ സൈറ്റൊന്നും ഓപ്പണാക്കാനൊന്നും പറ്റുന്നില്ല നെറ്റ്വർക്ക് തീരെയില്ല നെറ്റ്വർക്ക് ഇല്ലാത്തൊരു ഫോണാണ് മൊബൈലിൻ്റെ ബാറ്ററി അതിൻ്റെ ബാറ്ററിയൊന്നും നന്നീല്ല മൊബൈലിന് അധികം പവറൊന്നുമില്ല അത് ഒരു കമ്പിനി മൊബൈലും അല്ലാന്ന് തോന്നുന്നു